സാധാരണക്കാരില് സാധാരണക്കാരനായ എന്നാൽ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനം വരെ എത്തിയിട്ടുള്ള രണ്ടായിരത്തി രണ്ട് മുതല് രണ്ടായിരത്തിയേഴ് വരെ നമ്മുടെ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള എ പി ജെ അബ്ദുൽ കലാം ആണ് എന്റെ പ്രചോദനാത്മക വ്യക്തിത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചെടുത്തോളം വളരെ യാതനകള് നിറഞ്ഞതായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടം തികച്ചും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം പക്ഷേ വിദ്യാഭ്യാസം ഒരു വഴിയിലും ഉപേക്ഷിച്ചില്ല ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിന് ചുക്കാൻ പിടിച്ച വളരെ സമുന്നതനായ ഒരു വ്യക്തി തന്നെയായിരുന്നു എ പി ജെ അബ്ദുൽ കലാം സീറോ ഹെറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു ആളായിരുന്നു അദ്ദേഹം അതായത് ഒരാൾ പോലും എന്റെ അറിവിൽ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞതായി ഞാന് കേട്ടിട്ടില്ല എല്ലാവർക്കും ഒരുപോലെ കണ്ണിലുണ്ണിയായിരുന്ന എളിമയുള്ള വിനയാന്നിതനായ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം